ഇരുപത്തഞ്ച് പത്ത് ആയിരത്തിതൊള്ളായിരത്തി എഴുപത്തൊൻപത് പതിനാല് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണൂറ്റി ഏഴ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് എട്ട് ആറ് ആയിരത്തിത്തൊള്ളയിരത്തി തൊണ്ണൂറ് രണ്ട് പത്ത് രണ്ടായിരത്തി ഒന്ന്